ഓ ആ ശരി ഓക്കെ താങ്കളുടെ പേര് എന്താരുന്നു ഷാനവാസ് ഓ ഓക്കെ ആ അപ്പം ഷാനവാസ് ഇത് എന്തെങ്കിലും പുതിയ സിനിമയിലോ എന്തെങ്കിലും ഷോർട്ട് ഫിലിമ്സിലോ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ ആ ഞാൻ ഞങ്ങൾ ഒരു പുതിയ സിനിമ എടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം പുതിയ പുതിയ മുഖങ്ങളെ വച്ചാണ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം അപ്പം താങ്കൾ ഇതുവരെയായിട്ടും പേര് എന്താണ് ഷാനവാസ് അല്ലേ ഷാനവാസ് ആ അപ്പോൾ ഒരു ഷോർട്ട് ഫിലിംസ് സ്റ്റേജ് ഷോയിലോ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ ഇതുവരെ എങ്കിലും പിന്നാ ആ ആ നമ്മൾ ഇങ്ങനെ നോക്കുന്നത് നല്ല കഴിവുകളും നല്ല എക്പീരിയൻസും വേണമെന്നാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ ആ ആ ഓക്കെ നമ്മൾ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നു പറഞ്ഞാൽ ഒരു ഹീറോയുടെ ഹീറോയുടെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ നോക്കുന്നത് ആ ഇതുവരെയായിട്ടും അപ്പം ക്യാ

ആ ഓക്കെ ഓക്കെ ഓ വളരെ നന്ദി നന്ദി ആ നന്ദി ആ ആ ഇപ്പം അടുത്ത് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു അടുത്ത് അല്ല പേര് ടൈറ്റിൽ ഇട്ടിട്ടില്ല സ്ക്രിപ്റ്റ് ആ ആ അതാണ് ഞാൻ നോക്കുന്നത് ഈ ഈ പുതിയ സിനിമയിൽ ഞാൻ അതിനാണ് ഞാൻ താങ്കളെ താങ്കളെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞത് ആ ഇവരോട് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ബാക്ഗ്രൗണ്ടിൽ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇവർ കൂടെ ആ ആ ആളാണ് എല്ലാ എല്ലാ എല്ലാ സ്ക്രീനിലും കാണും ഓൾമോസ്റ്റ് ആ അതെ അതെ അതെ ആ പൃഥ്വിരാജിൻ്റെ ആ ഏകദേശം പറയാം ഇപ്പ താങ്കൾ ഇതുവരെ ആയിട്ടും ഒരു ഓഡീഷനോ ഒന്നും പോയിട്ടില്ല അല്ലേ ആ ഓക്കെ ആ ഓക്കെ ആ അത് അതിൻ്റെ വീഡിയോ വല്ലതും ഉണ്ടോ കണ്ടിട്ട് ആ ഓക്കെ

അപ്പം ഇനി എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ വിളിക്കാം ഞങ്ങൾ ആ ഓക്കെ ആ ഓക്കെ വിളിക്കാം താങ്കളെ വിളിക്കാം ഉണ്ടെങ്കിൽ ചാൻസ് ഉണ്ടെങ്കിൽ വിളിക്കാം ആ വിളിക്കാം വിളിക്കാം ആ വിളിക്കാം വിളിക്കാം നമ്പർ താങ്കൾക്ക് ഈ നമ്പർ തന്ന അയാൾ എടുത്തു ചോദിച്ചാൽ മതി തരും അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡോ എന്തെങ്കിലും ചോദിച്ചാൽ മതി തരുന്നയായിരിക്കും സ്ഥലം കൊല്ലമാണ് ആ അതെ അതെ ആ ആ അതുകൊണ്ടാണല്ലോ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തത് നല്ല സിനിമ ആയതുകൊണ്ട് ആ വിളിക്കാം വിളിക്കാം ഉറപ്പായിട്ടും വിളിക്കാം ആ

ഓക്കെ ഓക്കെ ആ